ഹലോ ചേട്ടാ ഞാൻ വിളിച്ചത് ഒരു കാർ ബുക്ക് ചെയ്യുന്നതിനെ കാര്യത്തെപ്പറ്റി സംസാരിക്കാനാണ് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും കൂടി ഒരു വിനോദയാത്ര ആസൂത്രണം ചെയ്യുന്നുണ്ട് നാലു ദിവസത്തെ ട്രിപ്പാണ് മൂന്നാറിലാണ് പോവാൻ നമ്മളുദ്ദേശിക്കുന്നത് ഇപ്പോൾ അറിയേണ്ടതായിട്ടുള്ളത് ഓരോ കിലോമീറ്ററിനും എത്ര വില വെച്ചാവും എന്നറിയണം പിന്നെ ബുക്ക് ചെയ്യേണ്ടത് നേരത്തെ നമ്മളിതുപോലെ വിളിച്ചു ബുക്ക് ചെയ്യണോ അതോ അവിടെ വന്ന് ബുക്ക് ചെയ്താൽ മതിയോ എന്ന് അറിയാൻ വേണ്ടിയാണ്